മലയാളം വളരെ ശ്രേഷ്ഠ ഭാഷയായിട്ടാണ് കണക്കാക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് മലയാള ഭാഷ കേരളത്തിന്റെ സാംസ്കാരികതയിലും സാഹിത്യത്തിലും കലാരൂപങ്ങളിലുമെല്ലാം മലയാളത്തിന് വളരെയധികം പങ്കുണ്ട് ഒടും ഒരുപാട് അംഗീകരിക്കപ്പെട്ട കൂടിയാട്ടം ആണെങ്കിൽ പോലും അത് മലയാളത്തിലോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നൃത്ത കലാരൂപമാണ് പിന്നെ സാഹിത്യം പറയുകയാണെങ്കിൽ എഴുത്തച്ഛനും കുമാരനാശാനും വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ ഒരുപാട് മലയാളത്തിനെ ഒരുപാട് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട് മലയാളം എന്താണെന്ന് അവരുടെ കൃതികൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും സാംസ്കാരിക തലത്തിലും മലയാളത്തിന് വളരെയധികം പങ്കുണ്ട് മലയാളികൾ എന്ന് പറയുമ്പോൾ വളരെ കൗതുകത്തോടെ കാണുന്ന ആൾക്കാരുണ്ട് മലയാളം മറ്റു ഭാഷയിലുള്ളവർക്ക് സംസാരിക്കാൻ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് കാരണം അതിന്റെ വഴക്കവും പഴക്കവും തഴക്കവും ഒക്കെ ബാക്കിയുള്ള ഭാഷ പറയുന്നവർക്ക് പെട്ടന്ന് മനസ്സിലാക്കാൻ പാടാണ് എന്നാൽ മലയാളം സംസാരിക്കുന്ന ഒരാൾക്ക് മറ്റു ഭാഷകൾ സംസാരിക്കാൻ പൊതുവേ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അങ്ങനെ മലയാളത്തിനെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മലയാളഭാഷയ്ക്ക് ഒരു വലിയ പങ്കു തന്നെയാണ് ഉള്ളത്